ഒരു ദിവസം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ്കൾന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം ഫേയ്സ്ബുക്ക് യൂട്യൂബ് അതുപോലെ ഒരു ഇംഗ്ലീഷ് ന്യൂസ്സ് കിട്ടുന്നൊരു ആപ്പുണ്ട് ഇൻഷോഡ്ന്ന് പറയുമ്പം അതെല്ലാവാണ് ഇത് ന നമുക്ക് രണ്ട് വിധത്തിൽ ഊ ഉപയോഗിക്കാം മോശമായിട്ട് ഉപയോഗിക്കാം ഏറ്റവും നല്ല രീതിക്കും ഉ ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നത് ഞാൻ നല്ല രീതിക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ ഏറ്റോം വലിയ പ്രശ്നം ഇങ്ക്ളീഷ് ലാങ്വേജ് കോൺഫ്ഡൻടായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ കൂട്തലായിട്ട് കാണാറുള്ളത് ഇങ്ക്ളീഷ് വ്ളോഗ്ഗ്കളും ഇങ്ക്ളീഷ് സിൻമകളും ഇങ്ക്ളീഷ് സ്പ്പീക്ക്കളെ സ്പീച്ച് സ്പീച്ച്കളക്കെയാണ് അത് ഇപ്പം എൻ്റെ ഇങ്ക്ളീഷ് ലാങ്വേജിനെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലരീതിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ന്യൂസ്സ്കൾ കാണാൻ ഞാൻ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഫേയ്സ്ബുക്ക് വഴിയും ഒരുപാട് ന്യൂസ്സ്കൾ അറിയാറുണ്ട് അതുകൊണ്ട് തന്നെ അത് വളരെയധികം സഹായിച്ചുണ്ട് എന്നുതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്